ബൈക്കിൽ സന്ദർശിക്കാൻ ആഗ്രഹമില്ലാത്ത പെൺകുട്ടികള് വളരെ കുറവായിരിക്കും ഏറ്റവും കൂടുതൽ ബൈക്കിൽ ഹിമാലയത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന പെൺകുട്ടിയാണ് ഞാനും ആഗ്രഹിക്കുന്ന അതുപോലെ അതുപോലെ തന്നെ നല്ല മഞ്ഞുമലകൾ നിലനിൽക്കുന്ന ആ നമ്മുടെ സ്വന്തം സ്വന്തം സ്വന്തം എന്തു പറയാന് പറ്റും നമ്മുടെ സ്വന്തം എന്നു പറഞ്ഞ നമ്മുടെ ഇന്ത്യക്കാരനാണ് എന്നാലും പറയുകയാണ് കുളു മണാലിയൊക്കെ പോകുക എന്നുള്ളത് എൻ്റെ വലിയ ഒരു ആഗ്രഹമാണ് നമ്മുടെ ഇന്ത്യയ്ക്കകത്തുതന്നെ നില്ക്കുന്ന ചെറിയൊരു സ്ഥലമാണെങ്കിലും ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ ചെല്ലുന്ന ഒരു സ്ഥലമാണിത് അതും ബൈക്കിലുള്ള റൈഡൊക്കെ പോകാമെന്നു പറയുന്നത് ഭയങ്കരം തന്നെയായിരിക്കും അവിടുത്തെ മഞ്ഞു മലകൾക്കിടയിലൂടെ ഉള്ള യാത്ര എക്സ്പീരിയൻസൊക്കെ ഭയങ്കരമായിരിക്കും നമ്മുടെ കൂടെ ആരുമായിക്കോട്ടെ നമ്മുടെ കൂടെ പാർട്ണറാവട്ടെ നമ്മുടെ ഫ്രണ്ട്സാവട്ടെ അവരുടെ കൂടെയൊക്കെ അവിടെ എൻജോയ് ചെയ്യുക മഞ്ഞുമലകള് മഞ്ഞുമലകൾ എന്നു പറയുന്നത് നമ്മളിപ്പോള് ഉള്ളതൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ടാണ് അത് അവിടെ പോകുക എന്നുള്ള ഇത്ര ആഗ്രഹം ഉള്ളിലിങ്ങനെ ഉണ്ടാകുന്നത് പിന്നെ അതുപോലെ അവിടുത്തെ കൾച്ചര് അവിടുത്തെ ആളുകളുടെ രീതികളറിയുക എന്നൊക്കെ ഉള്ളതൊക്കെ അതുപോലെ തന്നെയാണു നമ്മുടെ ഇന്ത്യാ ഗേറ്റ് സന്ദർശിക്കുക നമ്മളൊരു ഇന്ത്യക്കാരനായിരുന്നിട്ടു നമ്മുടെ സ്വന്തം ഇന്ത്യ ഗേറ്റ് കണ്ടിട്ടില്ല എന്നു പറയുന്നതു പടത്തിലല്ലാതെ കണ്ടിട്ടില്ല എന്നു പറയുന്നതു തന്നെ നമ്മളെക്കുറിച്ചു നാണക്കേടാണ് എന്നാൽ അവിടെ പോകുക അതു കാണുക ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ച് ഏറ്റവും പ്രൗഡായ നിമിഷമായിരിക്കും നമ്മുടെ സ്വന്തം ഇന്ത്യൻ ഗേറ്റ് കാണുന്നത് നമ്മൾ നേരിട്ടു കാണുന്നതു പോയി ആ അതുകൊണ്ട് ഒരു അതുകൊണ്ട് അതുപോലെ തന്നെയാണു നമുക്കു പലതരത്തിലുള്ള നമ്മുടെ ഇന്ത്യയ്ക്കകത്ത് ഈ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മുടെ ആ ചെങ്കോട്ട ചെങ്കോട്ടയിൽ പോവുക എന്നുള്ളത് ഒരു വലിയൊരു ആഗ്രഹം തന്നെയാണ് അതുപോലെ നമ്മുടെ താജ്മഹൽ പ്രണയത്തിൻ്റെ സിമ്പലായ താജ്മഹലില് പോകുക ആഗ്രയിൽ നിൽക്കുന്ന താജ്മഹാളില് പോകുക എന്നുള്ളത് ഒരു വലിയ ആഗ്രഹമാണ് അത് എന്തുകൊണ്ടെന്നു വച്ചാല് പ്രണയത്തിന്റെ സിംബലാണ് അത് ചരിത്ര പ്രാധാന്യമാണ് തൂ വെള്ള നിറത്തിലുള്ള ആ ഒരു വലിയ കൊട്ടാരം എന്താണ് അതിനു പറയുന്നത് അതു കാണാൻ നേരിട്ട് നമ്മുടെ കണ്ണാൽ കാണാന് കഴിയുക എന്നുള്ളതൊരു ഷാജഹാനും മുംതാസും അതായത് മുംതാസിനുവേണ്ടി ഷാജഹാൻ പണിഞ്ഞ ആ ഒരു കൊട്ടാരം നമ്മുടെ കണ്ണിനാൽ നേരിട്ടു കാണുക കഴിയുക എന്നു പറയുന്നത് അതു വലിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും എന്നാൽ അതുപോലെ തന്നെ നമ്മുടെ കൊച്ചു കേരളത്തില് ഒരുപാടു സ്ഥലങ്ങളുണ്ട് ഊട്ടി കൊടൈക്കനാൽ മൈസൂർ അതുപോലെ പാലക്കാട് നമ്മുടെ സ്വന്തം അഷ്ടമുടി ആ തേക്കടി നമ്മുടെ ആലപ്പുഴ ജില്ലയില് അവിടുത്തെ ബോട്ടിംഗ് പറയാൻ പറ്റില്ല ബോട്ടിങ്ങിനെക്കാള് സൂപ്പറാണ് അവിടുത്തെ ഫുഡ് നല്ല കരിമീനും നല്ല സദ്യയും കപ്പയൊക്കെ ആയിട്ടുള്ള ഫുഡ് അതു തന്നെയാണ് അവിടത്തെ ഹൈലൈറ്റ് പിന്നെ നമ്മുടെ കൊല്ലം ജില്ലയിലെ ഗരുഡഗിരിപ്പാറ അത് എല്ലാവരും കാണേണ്ട നല്ല സൂപ്പറാണ് അതുപോല നമ്മുടെ പാലക്കാട് പാലക്കാടിനു പിന്നെ പറയാനൊന്നുമില്ല ഇഷ്ടം പോകാറുണ്ട് പാലക്കാട് ജില്ലയ്ക്കാണു നമ്മുടെ പത്തനംതിട്ടയിലെ ഗവി അത് ഒരു മഞ്ഞുമല തന്നെയാണ് ഗവി എന്നു പറയുന്നത് അതും വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ്